ഇപ്പോൾ എന്താ പറയുക ആ നമുക്ക് കോഴിക്കോട് ജില്ലയില് ഇപ്പോൾ ഉള്ളൊരു എന്താ പറയുക യാത്ര സംവിധാനം തന്നെയാണ് ട്രെയിൻ ഇപ്പോൾ ട്രെയിനിനെ പറ്റി വിവരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെയിനുകൾ കണ്ടിട്ടുണ്ട് ട്രെയിൻ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പാസ്സഞ്ചർ വരുന്നുണ്ട് പിന്നെന്താ പറയുക ഗൂഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാനുള്ള ട്രെയിനുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മള് കണ്ടുമുട്ടുന്നതെന്താണെന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ് പണ്ട് കാലത്ത് പല തരത്തിൽ സ്റ്റീം എഞ്ചിനൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഇലെക്ട്രിസിറ്റിയാണ് കൂടുതൽ ട്രെയിനുകൾക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരെഞ്ചിൻ തന്നെ എത്രയോ ബോഗികള് വലിച്ചുകൊണ്ട് പോകാൻ കാപ്പാസിറ്റിയുള്ള എഞ്ചിനാണ് അതിന് വരുന്നത് ഭയങ്കര ശബ്ദമാണ് അതായത് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടുമ്പോൾ ടയറും പാളവുമായിയിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഇത് വരുമ്പോൾ സ്ട്രൈക്കിങ്ങ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര സൗണ്ടാണതിന് വരുന്നത് പിന്നെ എന്താ പറയുക ചക്രങ്ങളൊക്കെ ഇരുമ്പ് കൊണ്ടാണ് അതും ഭയങ്കര എന്താ പറയുക വെയ്റ്റുള്ളൊരു ചക്രം തന്നെയാണതിന് വരുന്നത് പിന്നെ എന്താ പറയുക ട്രാക്കുകളെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഇരുമ്പ് ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഇത് വച്ചിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ട്രാക്കിൽ ഫുള്ള് എന്താ പറയുക ചിപ്സും കാര്യങ്ങളും അതായത് ചിപ്സല്ല മെറ്റലൊക്കെ വിതറിയിട്ടാണ് ട്രെയിനിൻ്റെ ട്രാക്കുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും ട്രെയിനിലിപ്പോൾ യാത്ര ചെയ്തേക്കുന്നത് മൈസൂർ പിന്നെ ആലപ്പുഴ അങ്ങോട്ടൊക്കെയാണ് എറണാകുളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ട്രെയിനിൽ കൂടുതൽ യത്രയൊക്കേയേ ചെയ്തിട്ടുള്ളു പിന്നെ ട്രെയിനിൽ എന്താ പറയുക സീറ്റൊക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ എന്താ പറയുക സീറ്റും കാര്യങ്ങളാക്കെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും സെക്കന്റ് ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് സെക്കന്റ് ക്ലാസ്സെന്നൊക്കെ പറഞ്ഞാൽ ബാത്റൂമും കാര്യങ്ങൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഭയങ്കര ഇറിറ്റേഷൻ ആണ് അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് ട്രെയിനിൻ്റെ ടോയ്ലെറ്റ് സംവിധാനമൊക്കെ പിന്നെ കിടക്കാനൊക്കെ ആയിക്കോട്ടെ ബെർത്തായിക്കോട്ടെ എല്ലാം അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്